മൃഗപരിപാലനരീതികളെ പിന്തുണയ്ക്കാൻ വേണ്ടി സർക്കാർ പല രീതിയിൽ സഹായങ്ങൾ നൽകുന്നുണ്ട് അത് ഒന്നാമതായിട്ട് മൃഗങ്ങളെ തന്നെ തുച്ഛമായ തുകയ്ക്ക് കർഷരിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെത്തന്നെ അതിനുവേണ്ടൾ പശുക്കൂടാണെങ്കിലും ആട്ടിൻകൂടാണെങ്കിലും അത് നിർമ്മിക്കുന്നതിൻറെ ചിലവ് വരുന്നതായിട്ട് അത് ചിലവ് വരുന്ന രീതികൾ അതിൻ്റെ ബില്ലുകൾ കറക്റ്റ് രീതിയിൽ ബില്ലുകളും കാര്യങ്ങളും സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ കറക്റ്റായ രീതിയിൽ ബില്ല് ചെയ്ത് ക്രമക്കേട് ഒന്നും കാണിക്കാതെ സർക്കാരിലേക്ക് അയച്ചാൽ സർക്കാരിനു വര്ഷാവർഷങ്ങളിൽ ചിലപ്പം പശുവിനുള്ള കൂടിനുള്ള പദ്ധതികൾ ആയിരിക്കും ചിലപ്പം ആടിനുള്ള കൂടിന് പദ്ധതികൾ ആയിരിക്കും ഓരോ സമയത്തു ഓരോ കാലഘട്ടങ്ങളിൽ എം ജീയിൽ ഓരോന്നിനായിരിക്കും അപ്പോൾ നമ്മൾ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് സർക്കാരിലേക്ക് പദ്ധതിക്കുവേണ്ടി അത് ആദ്യം ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് ചെയ്തുകൊടുക്കുക അതിനുശേഷം നമ്മൾ എന്താണ് നല്ലത് ആട്ടുംകൂടാണെങ്കിൽ ഞങ്ങളിപ്പം ഞങ്ങൾക്ക് ആട് വളർത്തൽ ഉണ്ടായിരുന്നു അപ്പം അതൊരു പത്ത് ആട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് കൂടിനുള്ള തുക കിട്ടുകയുളളൂ അപ്പം നമ്മളിങ്ങനെ അതിനുവേണ്ടി അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലുള്ള വെൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ രീതിയിൽ ചെയ്താണ് കൂടുകൾ നിർമ്മിച്ച് നല്ല ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അതിൻ്റെ മുടക്കുമുതൽ കമ്പിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പണിക്കൂലി ആണെങ്കിലും വെൽഡിങ്ങിനുള്ള ചാർജ് ആണെങ്കിലും ഷീറ്റിനുള്ള ചാർജ് ആണെങ്കിലും ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് ബില്ലുകൾ നമ്മൾ സൂക്ഷിച്ചുവച്ചിരുന്നു അതിനുശേഷം പണിയെല്ലാം തീർത്തതിനു ശേഷം നമ്മൾ ആടുകളേയും കൂടെ വാങ്ങിച്ചു ആടുകളേയും കൂടി വാങ്ങിച്ച് പത്ത് ആടുകളെ മേയ്ച്ചു അതിനുശേഷം ആണ് അതിൽ ഫോട്ടോയും കാര്യങ്ങളും എടുത്ത ബില്ല് സഹിതം നമ്മൾ പഞ്ചായത്തിൽ അപ്ലൈ ചെയ്തത് അതിനുശേഷം അവർ അത് വന്ന് ആൾക്കാർ വന്നുനോക്കി വിലയിരുത്തിയതിനുശേഷം മാത്രമാണ് അതിൻ്റെ ബില്ല് എല്ലാം സങ്ഷനായിട്ട് നമുക്ക് ഒരു തുക നിശ്ചിത തുക നമുക്ക് ഒരു

സബ്സിഡി ആയിട്ട് തന്നെ സർക്കാരിൽ നിന്ന് കിട്ടുകയാണ് ചെയ്തത് നമുക്ക് നമ്മളെ നമ്മളെക്കാൾ സാധാരണ കൃഷിക്കാർക്ക് കർഷകർക്ക് വളരെ ആശ്വാസം ലഭിക്കുന്നതാണ് പഞ്ചായത്തിൽനിന്നും സർക്കാരിൽ നിന്നുമുള്ള ഇതുപോലത്തെ സഹായങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാവരും മക്കളും വിദേശത്തൊക്കെയാവുമ്പം വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് പ്രായമായ മാതാപിതാക്കൾക്ക് ചെറിയ രീതിയിൽ മുട്ടക്കോഴികളെ വളർത്തുന്നുണ്ട് അതിനിപ്പം പഞ്ചായത്തുകളിൽ നിന്നാണെങ്കിലും കോഴികളെ അഞ്ചും ആറും കോഴികളെ മൂന്നുനാല് മാസം പ്രായമുള്ള കോഴികളെ മുട്ടയിടാറായ കോഴികളെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ബി പി എൽകാർക്ക് സൗജന്യമായിട്ട് എ പി എൽകാർക്ക് ഒരു നിശ്ചിത തുക അടച്ചതിനുശേഷം അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെ പഞ്ചായത്തും സർക്കാരും ഒത്തിരിയേറെ കർഷകരെ സഹായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ആടും കോഴിയും ആടും പശു ആണെങ്കിൽ നമ്മളത് ഓരോ നമ്മുടെ വീട്ടിലുള്ള ഒരു ആടിനേയും പശുവിനേയും നിശ്ചിതതുക മുടക്കി ഗവൺമെൻറ്റിൽ ഇൻഷുറു ചെയ്യുകയാണെങ്കിൽ ആ ആടിനോ കോഴിക്കോ എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചുകഴിഞ്ഞാൽ അതിനുള്ള തുക നമക്ക് സർക്കാരിൽനിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻഷുർ തുക ഇൻഷുറിന് വേണ്ടി ഒരു നിശ്ചിതതുക അടയ്ക്കണം പക്ഷേ നമ്മൾ അത് നഷ്ടമാണെന്ന് കരുതി നമ്മൾ ആടിനോ പശുവിനോ എന്തെങ്കിലും വന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് നമുക്ക് നഷ്ടമായിട്ട് തന്നെ വരും അല്ലെങ്കിൽ നമ്മൾ ഒരു ആയിരം രൂപ ഒരാടിന് അത് നഷ്ടമില്ലെന്നോർത്ത് തന്നെ നമ്മളത് ഇൻഷുവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകരീതിയിൽ നമുക്കതിൻ്റെ തുക ലഭിക്കും അപ്പം നമുക്ക് ഭയങ്കര പ്രതിസന്ധി ഒന്നും ആടിനോ പശുവിനോ നഷ്ടപ്പെട്ടാൽ അത്ര പ്രതിസന്ധി ആയിട്ട് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട സന്ദർഭം ഉണ്ടാവാറില്ല